ഇന്ത്യൻ ഫാഷനെ കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത് ഇന്ത്യയുടെ വസ്ത്ര തീ രീതി എന്നു പറഞ്ഞാൽ ഒരു പരമ്പരാഗ വസ്ത്ര രീതിയായിരിക്കും ഇവിടെ കൂടുലും ആൾക്കാര് സാരി ചുരിദാറൊക്കെയാണ് യൂസെയ്യുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണെങ്കില് പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് ഉൾക്കൊണ്ട ആൾക്കാർ പുതിയ രീതിയിലുള്ള ഫാഷൻ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെയാണെങ്കില് ഞങ്ങളുടെ നാട്ടില് ഞാൻ കൂടുതലായിട്ടും യൂസെയ്യുന്നത് ചുരിദാറുകള് ടോപ്പുകളൊക്കെയാണ് എൻ്റെ വീട്ടിലാണെങ്കില് അമ്മ സാരിയാണ് യൂസെയ്യുന്നത് ഞാന് എൻ്റെ നാത്തൂൻ എല്ലാവരും തന്നെ ച് ചുരിദാറ് സ് ടോപ്പ് എന്ന് വസ്ത്രങ്ങളൊക്കെയാണ് യൂസെയ്യുന്നെ ഞങ്ങള് കോട്ടയം ടൗണിൽ പോയിട്ടാണ് വസ്ത്രങ്ങളൊക്കെ എടുക്കുന്നത് അവിടെയാകുമ്പോൾ ഇഷ്ടംപോലെ കളക്ഷനും ഇഷ്ടം പോലെ വിവിധതരം ഡ്രസ്സുകൾ നമുക്ക് കിട്ടും ശീമാട്ടി ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും സാരി കളക്ഷൻ ഏറ്റവും കൂടുതല് പ്രശസ്തയായിട്ടുള്ള ഒരു കടയാണ് ശീമാട്ടി അതുപോലെ തന്നെ പുളിമൂട്ടിൽ അതുപോലെ ഒരുപാട് ബ്രാൻഡഡായിട്ടുള്ള കമ്പനികള് ഇപ്പോൾ കോട്ടയത്തുണ്ട് അവിടുന്ന് ടോപ്പുകളൊക്കെ ഞാൻ ഇഷ് സെലക്ട് ചെയ്യാറുണ്ട്